നമുക്ക് ഉപയോഗ ശൂന്യമായ ഒത്തിരി സാധനങ്ങള് കൊണ്ട് വളരെ അനേകം കരകൗശല വസ്തുക്കള് നിര്മ്മിക്കാന് സാധിക്കും അത് നിര്മ്മിക്കണമെങ്കില് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഒരു അതിനോട് ഒരു ഇഷ്ടം ഒരു താത്പര്യം അത് വലിയ ഒരു ഘടകമാണ് എന്നിരുന്നാലും ഞാൻ അതുപോലെ ഒട്ടനവധി സാധനങ്ങള് ഉണ്ടാക്കാന് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഈ തേങ്ങ ചുരണ്ടിയതിനു ശേഷം കിട്ടുന്ന ഒരു വസ്തുവില്ലേ അതായത് ചിരട്ട എന്ന് നമ്മുടെ നാട്ടില് പറയും ചിരട്ട ആ ചിരട്ടിയില് നിന്ന് ഒത്തിരി സാധനങ്ങള് ഉണ്ടാക്കാം ഞാന് ഒന്ന് ശ്രമിച്ചത് ചിരട്ടയില് നിന്ന് തവി അതായത് നമ്മൾ ചോറ് വിളമ്പാന് ഉപയോഗിക്കുന്ന തവി ഈ ചിരട്ടയില് നിന്ന് നമുക്ക് ഉപയോഗിക്കാന് സാധിക്കും ആ ചിരട്ടയുടെ മുകളിലത്തെ നാരുകളൊക്കെ വൃത്തിയായി കളഞ്ഞതിനു ശേഷം ആ ചിരട്ട നല്ലതുപോലെ പോളിഷ് ചെയ്ത് നമ്മൾ എടുക്കണം എന്നിട്ട് അതിന്റെ ഒരു വശത്തായിട്ട് രണ്ട് ദ്വാരങ്ങള് ഉണ്ടാക്കി അതിലൂടെ ഒരു വളരെ കട്ടിയുള്ള കട്ടി നല്ലപോലെ കട്ടിയുള്ള കമ്പ് ഉപയോഗിച്ച് അതിന്റെ സൈഡിലാ ആ നമ്മള് ഉണ്ടാക്കിയ ദ്വാരത്തിനിടയില് കൂടി നല്ലതുപോലെ ഫിക്സ് ചെയ്യണം അങ്ങനെ അല്ലെങ്കില് പിന്നെ ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് അതിന് പറ്റുന്ന ഒരു നല്ല ഒരു തരം പശയുണ്ട് ആ പശ ഉപയോഗിച്ച് നമുക്ക് അതിൽ ഒട്ടിച്ച് നമുക്ക് ഒരു നല്ല ഒരു തവി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ ചിരട്ട കൊണ്ട് നമുക്ക് വെറെ കരകൗശല അതായത് അതിന്റെ ആ ഒരു മുകൾ ഭാഗം ഉപയോഗിച്ച് നമുക്ക് പെയിന്റ് ചെയ്ത് പല പല രൂപങ്ങള് കൊടുത്ത് നമ്മുടെ ഷോ കെയ്സില് വെയ്ക്കാന് പറ്റുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള സാധനങ്ങള് ഉണ്ടാക്കാന് സാധിക്കും അതുപോലെ തന്നെ ഒന്നാണ് ഇപ്പം നമുക്ക് അറിയാമല്ലോ കണ്ടു വരുന്ന സംഭവമാണല്ലോ കുപ്പി കുപ്പിയിലുള്ള പെയിന്റിംഗ് അതായത് വേയിസ്റ്റായിട്ട് കളയുന്ന കുപ്പികൾ നമ്മുടെ പറമ്പിലും പരിസരത്തും ഓരോരുത്തർ വേയിസ്റ്റായിട്ട് കളയുന്ന കുപ്പികളൊക്കെ പെറുക്കി എടുത്ത് അതുപോലെ അതിൽ നല്ല പെയിന്റിംഗ് വര്ക്കുകള് ചെയ്യുക ആ വര്ക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഒരു വെയിസ് അതായത് ഫ്ലവര് പോട്ട് ആയിട്ട് ഉപയോഗിക്കാം വെയിസ് ആയിട്ട് ഉപയോഗിക്കാം അത് കണ്ടാൽ തന്നെ നമുക്കൊരു ആകര്ഷണവും ഒക്കെ കുപ്പിക്ക് തന്നെയൊരു ഗ്ലെയിസിംഗ് ഉണ്ടല്ലോ അപ്പം ഈ കളറും കൂടി ചെയ്തു കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് എഫക്ട് ഒക്കെ കൊടുക്കാകയാണെങ്കിൽ അത് നമ്മുടെ ഷോ കെയ്സിലൊക്കെ വെക്കാന് വളരെ നല്ല ഒരു വസ്തുവാണ് അത് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കിട്ട് നമ്മൾ മാര്ക്കറ്റില് ചെന്ന് കൊടുക്കുകയാണെങ്കില് അതിന് നല്ല സെയിൽ കിട്ടു കിട്ടും അല്ലേ തന്നെ നമ്മൾ അത് കണ്ടിട്ടുണ്ടാല്ലോ ഈ വലിയ വഴി ഇടങ്ങളിലൊക്കെ കുപ്പികളിൽ ആര്ട്ട് ചെയ്തിട്ട് വിൽക്കാന് ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒന്ന് പിന്നെ നമ്മൾ ഈ കടലിൽ നമ്മൾ ബീച്ചില് ബീച്ചില് ചെല്ലുമ്പോള് ശംഖുകൾ നമ്മൾ കളക്റ്റ് ചെയ്യാറില്ലേ അത് ഒരിടക്ക് ഓരോരുത്തരുടെ ഹോബിയായിരുന്നു ഈ ശംഖ് കളക്റ്റ് ചെയ്തിട്ട് ശംഖിൽ ഓരോ ആര്ട്ട് വര്ക്ക് ചെയ്യുക എന്നുള്ളത് പിന്നെ മറ്റൊന്ന് ഉള്ളത് നമ്മൾ ബീഡ്സ് അതായത് നമുക്ക് ബീഡ്സ് എന്ന് പറയുമ്പോൾ മുത്ത് നമ്മൾ കടയില് നിന്ന് മേടിക്കുന്ന മുത്തിനെ കാട്ടിലും നല്ലത് നമ്മുടെ അതായത് ഈ തടി തടി കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ ബീഡ്സ് നമ്മൾ അത് പക്ഷേ ഷെയ്പ്പ് ചെയ്ത് എടുക്കണം അതായത് തടിയില് നിന്ന് ചെറിയ ചെറിയ മുത്തുകൾ മുത്തുകൾ എന്ന് പറയാന് പറ്റില്ല മുത്തിന്റെ ഷെയ്പ്പിലുള്ള ഒരു വസ്തു നമ്മൾ തന്നെ ഷെയ്പ്പ് ചെയ്ത് എടുത്ത് മാലയായിട്ടോ കൈയില് ഇടുന്ന വളയായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാകാം കമ്മലായിട്ടൊക്കെ ഉണ്ടാകാം അത് അങ്ങനെ അങ്ങനെ പല പല വസ്തുക്കൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് ഒരു കരകൗശല വസ്തുവായിട്ട് ഉപയോഗിക്കാം പിന്നെ പാള നമ്മുടെ ഈ പ പനയുടെ ഓലയില് നിന്നും വീഴുന്ന പാള പാള ഉപയോഗിച്ച് നമുക്ക് ബാഗ് പോലെ അങ്ങനെ ബാഗ് പോലെ ഉണ്ടാകാം അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഈ കരകൗശല വസ്തുവായിട്ട് നമുക്ക് ഉണ്ടാക്കാന് സാധിക്കും